ഹലോ എൻ്റെ പേര് എലിസബത്ത് എന്നായിരുന്നെ കേൾക്കാമോ ആ ഓക്കെ അപ്പം ഞാൻ എൻ്റെ പാൻ കാർഡ് ഒന്നു പോയായിരുന്നു അപ്പം ഞാൻ ഈയിടെ ഒരു ജോലിക്കു വേണ്ടി അപേക്ഷ വെച്ചായിരുന്നു അപ്പോഴത്തേക്കും അവർ പ്രോസി അവരുടെ ഇതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞപ്പോൾ പാൻ കാർഡും കൂടെ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണെന്നെനിക്കറിയത്തില്ല അപ്പം പാൻ കാർഡ് എനിക്ക് വേണം തിരിച്ചെടുക്കണം വേറെ ആവശ്യങ്ങൾക്കും പാൻ കാർഡ് വേണോലോ അപ്പം എനിക്ക് പാൻ കാർഡ് വേണം അപ്പം അത് എങ്ങനെയായിരിക്കും പാൻ കാർഡിൻ്റെ പ്രൊസീജിയർ ഇനി തിരിച്ചെടുക്കാൻ വേണ്ടി ഇപ്പോൾ എല്ലാം പാൻ കാർഡ് ലിങ്കിങ്ങാണല്ലോ അപ്പോഴത്തേക്കു പാൻ കാർഡ് എനിക്കെടുക്കണം അതിൻ്റെ പ്രോസിജിയർ എങ്ങനെയായിരിക്കും ഞാൻ നേരിട്ടിനി അക്ഷയയിൽ ചെന്ന് ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യണോ അതോ എൻ്റെ നേരത്തത്തെ പാൻ കാർഡിൻ്റെ നമ്പർ എൻ്റെ ഇതുണ്ട് കോപ്പി എൻ്റെ കയ്യിലുണ്ട് അപ്പം ആ കോപ്പി വെച്ചിട്ട് ഞാൻ പാൻ കാർഡിൻ്റെ നമ്പർ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ എങ്ങനെയായിരിക്കും ഓക്കെ ഓക്കെ ആധാർ കാർഡും ഒന്നുകൂടി ചെന്നിട്ട് ചെയ്യണോ ആധാർ കാർഡൊന്നും കൊണ്ടുപോയിട്ട് കാര്യമിലല്ലെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ഞങ്ങൾ എങ്ങനാ അക്ഷയയിൽ ചെന്നിട്ട് ഇത് പോയെന്നു പറയുമ്പോഴത്തേക്ക് എങ്ങനെ നഷ്ടപ്പെട്ടെന്നൊക്കെ അവർ ചോദിക്കുമല്ലോ അപ്പം അതെങ്ങനെയായിരിക്കും പോയിട്ടിപ്പം ഒരു മാസമായിക്കാണും അപ്പോഴത്തേക്കും ഞാൻ ഈയിടെ ആവശ്യത്തിന് ഇപ്പോൾ നമുക്ക് പാൻ കാർഡ് ലിങ്കിങ് ഒക്കെ കഴിഞ്ഞല്ലോ അപ്പം പാൻ കാർഡിൻ്റെ ഒരു ആവശ്യത്തിനു വേണ്ടി ഇപ്പോൾ ഈയിടെ ജോലിയുടെ ആവശ്യത്തിനു വേണ്ടി അപേക്ഷ വെയ്ക്കാൻ നോക്കിയപ്പോഴത്തേക്കാണ് ഇതില്ലെന്നു ഞാൻ അറിഞ്ഞത് അപ്പോഴത്തേക്കത് ഓക്കെ ഓക്കെ ഒരു മാസമാണെങ്കിൽ ആ ഓക്കെ ഓക്കെ അപ്പം ഞാനിത് അക്ഷയയിൽ ചെന്നിട്ട് ആധാർ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് ഓക്കെ ഓക്കെ റേഷ് ആ എൻ്റെ കയ്യിൽ ഉള്ള എല്ലാ ഐഡന്റിറ്റീസും കൊണ്ടു ചെന്നുകഴിഞ്ഞാൽ പാൻ കാർഡിൻ്റെ ഫസ്റ്റ് പ്രോസിജിയറിൻ്റെ അത്രയും ഭാഗം നേരത്തെ എടുക്കാൻ പറ്റും അല്ലെ ആ ഓക്കെ ഓക്കെ അപ്പം അത്രയേയുള്ളു അല്ലെ ആ ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ